അലിയാർ മീൻ കട അല്ലേ ആ എനിക്ക് കുറച്ചു മീൻ വേണമായിരുന്നു എന്തൊക്കെ മീനാണ് ഉള്ളത് ഫ്രഷ് ആയിട്ടുള്ള മീൻ വേണം കരിമീനും കൊഞ്ചുമൊക്കെ ഉണ്ടോ മ്മ് അപ്പം കരിമീൻ ഒരു അര കിലോ വേണം കൊഞ്ച് ഒരു കിലോ വേണം ആ കരിമീനും കൊഞ്ചും റേറ്റ് ഒന്ന് പറഞ്ഞേ മ്മ് മ്മ് ഓക്കെ രണ്ടും രണ്ടും ഓരോ കിലോ വേണം വൃത്തിയാക്കി തരുമോ മ്മ് കൂടുതൽ തരാലോ വൃത്തിയാക്കുന്നതിന് കൂടുതൽ ആ രാവിലെ ഒരു പത്ത് മണി ആവുമ്പോഴത്തേക്കും കൊണ്ടു വരാൻ പറ്റുമോ രാവിലെ ഒരു പത്ത് മണിക്ക് എത്തിക്കാൻ പറ്റുമോ

ഓക്കെ സ്ഥലം എവിടെയാണ് എന്നൊന്ന് പറയണേ മ്മ് തോപ്രാംകുടിക്ക് തോപ്രാംകുടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടു വന്നാൽ മതി അമല ജംഗ്ഷൻ ആ ഓക്കെ വറുക്കാൻ പറ്റുന്ന മീനുകൾ ഏതൊക്കെയാണ് വറുക്കാൻ കൊള്ളുന്ന മീനുകൾ ആ കരിമീൻ വേണം മത്തി ഉണ്ടോ മ്മ് കരിമീനും മത്തിയും ഓരോ കിലോ തന്നേരെ കൊഞ്ചും വേണം എല്ലാം വൃത്തിയാക്കി കൊടുത്ത് വിടണം കേട്ടോ മ്മ് മ്മ് അതിനൊന്നും കുഴപ്പമില്ല ഫ്രഷ് സാധനം കിട്ടിയാൽ മതി

ഓക്കേ